ഇപ്പോൾ മീഡിയയുടെ യുഗങ്ങളാണ് വാർത്തകൾ ശ്രദ്ധിക്കാൻ യുവതലമുറയെ എപ്പോഴും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട് പക്ഷെ യുവതലമുറകൾ വാർത്തകളെപ്പറ്റി അത്ര വാർത്തകൾ കേൾക്കാൻ വേണ്ടി അത്ര പ്രോത്സാഹനം അത്ര മാത്രം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നവരല്ല വാർത്തകൾ കേൾക്കുന്നുണ്ട് എന്തെല്ലാം ഗുണം പല പല ഗുണങ്ങളുണ്ട് നമ്മൾ ലോകത്തെ പറ്റി അറിയാനും ഓരോ ദിവസത്തെ നടന്ന കാര്യങ്ങൾ അറിയാനും ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ കാര്യങ്ങൾ ഇന്ത്യയിലെ കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ അറിയാൻ ദിവസം വാർത്തകൾ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുന്നത് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് ഒന്നാമത്തെ പ്രയോജനം ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം കാലാവസ്ഥയുടെ കാനം കാലാവസ്ഥയുടെ കാര്യം അറിയാൻ വാർത്തകൾ കേൾക്കുന്നുണ്ട് റെഡ് അലേർട്ട് മഞ്ഞ അലേർട്ട് എന്നും പറഞ്ഞു എന്നും മീഡിയയിൽ വന്നു കൊണ്ടിരിക്കുകയല്ലേ അതൊക്കെ അലേർട്ടുകൾ കുറെ കുറേയൊക്കെ ശരിയാണ് അത് അത് കേൾക്കുന്ന ഒരു ഒരു വിധത്തിൽ പ്രയോജനപ്പെടുന്നുണ്ട് പിന്നേ നമ്മുടെ രാഷ്ട്രീയം പ്രോട്ടി പൊളിറ്റിക്സ് ഓരോരുത്തർ പറയുന്നത് പ്രധാനമന്ത്രി പറയുന്നത് വിദേശത്ത് വിദേശത്തെ കാര്യങ്ങൾ എല്ലാം വാർ മീഡിയയിൽ കൂടെ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പം മീഡിയ മീഡിയ ഇല്ലാത്ത ജീവിതമില്ലല്ലോ മീഡിയ ആണ് നമ്മുടെ ജീവിതത്തിൽ മുൻപിൽ നിൽക്കുന്നത് മീഡിയാ യുവതലമുറകൾ അവരുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വാർത്തകൾ ശ്രദ്ധിക്കുന്നത് വളരെ ഉപകാരപ്രദവും പ്രയോജനം പ്രദമാണ് ദിവസേനയുള്ള വാർത്തകൾ കേൾക്കുവാൻ നമ്മടുക്കേ ഇപ്പം മൊബൈൽ മീഡിയ മൊബൈൽ കൂടെ നമുക്ക് കേൾക്കാം ടിവിയിൽ കൂടെ കേൾക്കാം ന്യൂസ് പേപ്പറിൽ കൂടെ കേൾക്കാം ന്യൂസ് പേപ്പർ വായിച്ചാൽ ഒരുപാട് പ്രത്യേകിച്ചും നമ്മുടെ ഇംഗ്ലീഷ് പേപ്പറുകളൊക്കെ വായിച്ചാൽ എല്ലാ വാർത്തകളും നമുക്ക് ശ്രദ്ധിക്കാനാവും മലയാളം പേപ്പർ ശ്രദ്ധിക്കുക മലയാളം പേപ്പറ് വായിച്ചാലും ശ്രദ്ധിക്കാനാവും പക്ഷേ ഇപ്പം റീഡിങിനൊന്നും ആർക്കും സമയമില്ല ആയതിനാൽ ഇപ്പം കൂടുതലും എല്ലാവരും മൊബൈൽ മൊബൈൽ വരുന്ന വാർത്തകളാണ് കാണുന്നത് ടി വി തുറന്നാൽ ഇപ്പം സീരിയലും സിനിമകളാണ് യുവതലമുറ കാണുന്നത് വാർത്തകൾ കാണുന്നവർ വളരെ ചുരുക്കമാണ് എന്നിരുന്നാലും അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് വാർത്തകൾക്ക് നമ്മുടെ പ്രോത്സാഹനം ഒരു പ്രയോജനം അവർക്ക് പ്രയോജനപ്പെട്ടാൽ നല്ലതാണ് യുവതലമുറകൾ എപ്പോഴും വാർത്തകൾ കേൾക്കുന്നത് നല്ലതാണ് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ യൂഗമെന്ന് വച്ചാൽ മീഡിയയുടെ യുഗമാണ് ഓരോ വാർത്തകളും ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് വളരെ പ്രയോജനപ്പെടും